ഹലോ ഇൻഷുറൻസ് ഏജൻറ് അല്ലേ ആ എൻ്റെ പേര് പ്രദീപ് അപ്പോൾ ഞാൻ ഈയിടെ ഒരു കാർ മേടിച്ചിരുന്നു അപ്പോൾ എനിക്കൊരു കാർ ഇൻഷുറൻസിനെ പറ്റിയൊന്ന് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഒന്ന് പറയാമോ ഞാൻ ഇപ്പം പുതിയ ഇറങ്ങിയ സിറ്റി ആണ് വാങ്ങിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആ ഹോണ്ടാ സിറ്റി ആ ഒരു ഒരു മാസം ആയിട്ടുള്ളൂ പുതിയ വണ്ടിയാണ്

അതായതിപ്പം ഞാനൊരു ബൈക്കിനെ ചെന്നിടിച്ചാൽ ബൈക്കിൽ ഉണ്ടാവുന്ന എല്ലാ കേടുപാടുകളും നേരാക്കാനുള്ള ഇൻഷുറൻസ് ആണത് അല്ലേ ആ ഓക്കെ ആ എന്ന് പറഞ്ഞാൽ ഉം ആണല്ലേ ആ അതിൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് പറയാമോ

ആ അപ്പം അതിലിപ്പോൾ ഇപ്പം അഥവാ ടെസ്റ്റ് വല്ലതുമൊക്കെ അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ അതും ഒക്കെ കവർ ആവുമല്ലോ അല്ലേ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കക്കാനൊക്കെ ഉദ്ദേശിച്ച് ജനലൊക്കെ പൊട്ടിക്കുവാണെങ്കിൽ അതൊക്കെ കവർ ആവുമോ ഇതിൽ

ആ അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് ഫൈനലൈസ് ചെയ്യാൻ നമുക്ക് എവിടെയെങ്കിലും വെച്ചൊന്ന് മീറ്റ് ചെയ്തിട്ട് ഡോക്യൂമെൻറ്സ് ഒക്കെ ഒന്ന് ശരിയാക്കാൻ പറ്റുമോ എപ്പോഴെങ്കിലും അത്ര മതിയല്ലേ

ആ ആപ്പിൻ്റെ പേരെന്താണ് അഗ് അഗ്നി ഇൻഷുറൻസ് അല്ലേ ആ ഞാൻ നോക്കാം വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാം ഓക്കെ താങ്ക് യു